എന്തായിരുന്നു ആ ഫ്രൂട്ട്സ് ആപ്പിൾ ഇരിപ്പുണ്ട് മുന്തിരി ഇരിപ്പുണ്ട് ഓറഞ്ച് ഇരിപ്പുണ്ട് നെല്ലിക്ക ഇരിപ്പുണ്ട് ചക്ക ഉണ്ട് മാങ്ങ ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് അത് വരിക്ക ചക്കയാണ് കിലോ നാൽപ്പത്

ആ എത്രയാണ് ശരിക്കും പഴുത്തതാണോ ഉദ്ദേശിച്ചത് ബോളി ഉണ്ടാക്കാൻ പാകത്തിനുള്ളതോ ആ ഉണ്ടല്ലോ അഞ്ച് കിലോയാണ് എഴുപത് രൂപയാണ് മ്മ് വില കൂടുതലാണ് ആ ഞാലിപ്പൂവനുണ്ട് റോബസ്റ്റ ഉണ്ട് വില ഞാലിപ്പൂവന് അറുപത് രൂപ ആ ബോളി ഉണ്ടാക്കാൻ പാകത്തിനുള്ളതാണ് കുഴപ്പമില്ലാത്തതാണ് ആ കായിക്ക് വണ്ണം കൂടുതൽ ഉള്ളത് വേണോ കുറവുള്ളത് മതിയോ വണ്ണം കുറഞ്ഞത് മതിയോ ആ എപ്പം വന്നാലും ഇവിടെ ഉണ്ട് നേരത്തെ വരികയാണെങ്കിൽ തീർന്നു പോകുന്നതിന് മുൻപ് കൊണ്ടുപോകാൻ പറ്റും മ്മ് ആ ആ ചക്ക രണ്ടെണ്ണമാണ് തൂക്കമാണോ ആ അഞ്ച് കിലോ ഏത്തപ്പഴം അഞ്ച് കിലോ ആ ആ ആ

പഴുത്തുപോയായിരുന്നോ ആ വരിക്ക ചക്ക ഉണ്ട് ഏകദേശം എത്ര കിലോയാണ് ഉദ്ദേശിക്കുന്നത് ആ ആ ആ ഫ്രഷ് ആണ് സാധനം ഇരിക്കുന്നത് അതാ ആ കട തോപ്രാംകുടിയിൽ തന്നെ

ആ എപ്പോഴത്തേക്ക് വരുവായിരിക്കും ആ ആ ഏത്തപ്പഴം ആവശ്യത്തിനുണ്ട് എത്ര കിലോ വെച്ച് ആ നല്ല പഴം ഉണ്ട് നല്ലപോലെ പഴുത്തത് മാത്രം മതിയോ അതോ കേട് കേടുള്ള സാധനങ്ങൾ ഇവിടെ കൊടുക്കാറില്ല നല്ല മ്മ് ആ നല്ല നെല്ലിക്കയാണ് നാടൻ നെല്ലിക്ക ആണോ ശീമൻ നെല്ലിക്ക ആണോ വേണ്ടത് നാടൻ നെല്ലിക്കയാണ് ആ

മൂന്ന് ചക്ക ആ

ആ എടുത്ത് വെച്ചേക്കാം ഉവ്വ് ഓക്കെ ഓക്കെ